എനിക്ക് മൃഗങ്ങള് പറഞ്ഞാലേ എനിക്ക് ആടുണ്ടായിരുന്നു ഒരു നാലഞ്ച് ആട് ഉണ്ടായിരുന്നു അതൊരു തള്ള ആടിന് ഒരു കുട്ടീനെയും വാങ്ങിയിട്ട് ആ കുട്ടി വലുതായപ്പോൾ നമുക്ക് ആ തള്ളേനെയും കുട്ടീനെയും വാങ്ങിയ ആ വിലയ്ക്ക് നമുക്ക് ഒരു കുട്ടീനെ വിൽക്കാൻ പറ്റി അങ്ങനെയാണ് ആട് വളർത്തൽ ഒരു ആറ് മാസം കഴിയുമ്പോഴേക്ക് ആ വാങ്ങിയ കുട്ടിക്ക് തന്നെ നമുക്ക് ആ വില കിട്ടും പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രശ്നം ഈ ആടുകൾക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് പ്രസവസമയത്തൊക്കെ ആവും മെയിൻ ആയിട്ട് ഈ ചെറിയ കുട്ടികളെ അതായത് ഈ ക കന്നി പ്രസവമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചില ആടുകൾ പ്രസവിച്ച് പോരാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ ഡോക്ടറെ ഒക്കെ വിളിക്കും നമ്മളെ പ്രദേശത്തെ ഡോക്ടർ ഉണ്ട് അയാള നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അയാൾ വരും അതിന് വേണ്ടുന്ന ന് നിർദേശങ്ങൾ മരുന്ന് ഇഞ്ചക്ഷൻ കാര്യങ്ങൾ എല്ലാം ഒരുവിധം മരുന്നുകളൊക്കെ അയാൾ കൊണ്ടുവരും അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും അവയ്ക്ക് വേണ്ടുന്ന സംരക്ഷങ്ങൾ സംരക്ഷണങ്ങൾ എന്തോക്കെയാണ് വേണ്ടതെന്ന് വച്ചാൽ അതൊക്കെ പറഞ്ഞുതരും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം അത് പറഞ്ഞുതരും പിന്നെ മരുന്ന് ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങാനുള്ളതാണെങ്കിൽ മരുന്നിൻ്റെ കുറിപ്പടിയൊക്കെ നമുക്ക് തരും കുറിപ്പിലിട്ട മരുന്നൊക്കെ വാങ്ങാം ആട് വളർത്തൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് വർഷം ഞാൻ ആട് വളർത്തിയിരുന്ന ഒരാളാണ് ഇവിടുത്തെ ഡോക്ടർമാർ ഒക്കെ നല്ല സപ്പോർട്ടും ഉണ്ട് കുഴപ്പമില്ല നല്ലൊരു പരിപാടിയാണ്